ഹലോ ആമസോണല്ലേ ഇത് ഞാൻ ഒരു അവിടെ നിന്ന് ഒരു മൊബൈൽ ഓർഡർ ചെയ്തിരുന്നു മൊബൈല് ഐ ഫോണായിരുന്നു ഐ ഫോൺ ഫോർട്ടി ഫോർട്ടി ഫോർ അത് ഓൺലൈൻ്റെ പ്രോസസ്സിംഗ് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച്ച ചെയ്തതാണ് ഇതുവരെ ഇതിന്റെ റിപ്പോട്ടന്നും ചെയ്തിട്ടില്ല മണി അതെ അതെ മണി പേയ്മെൻറ് ചെയ്തിരുന്നു ഓഡർ ഇങ്ങോട്ട് വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല ഇതുവരെ അപ്ഡേറ്റ് ഒന്നും അറിയാത്തത് കൊണ്ടാണ് വിളിക്കുന്നത്

നിങ്ങളൊന്നും പറഞ്ഞില്ല അതിൻ്റെ ആ പൈസൊക്കെ അടച്ചതാണ് ഫീ അടച്ചതാണ് അതിൻ്റെ പൈസൊക്കെ അടച്ചതാണ് ഒന്നര ലക്ഷം രൂപ അടച്ചതായിരുന്നു ഇവിടെ നൽകുമെന്ന് പോസ്റ്റിങ്ങൊക്കെ കറക്റ്റായിരുന്നു നമ്പറുമെല്ലാം ലൊക്കേഷൻ എല്ലാം കറക്റ്റായിരുന്നു ഇത് വരെ എത്തിയിട്ടില്ല അത് ഞാൻ ഇത് എത്താത്ത കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാൻ നോക്കി നിന്ന് പക്ഷേ ക്യാൻസൽ ചെയ്യാൻ സാധിച്ചില്ല ഓൾറെഡി പേയ്മെൻറ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയിച്ചത് നമ്മൾ ഒരു വിവരം നൽകുകയാണെങ്കിൽ പൈസ അടച്ചതാണല്ലോ ഫോൺ പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ വളരെ ഉപകാരം ഉപകാരമായിരുന്നു ഓക്കെ ഓക്കെ നിങ്ങൾ പ്രോസസ്സ് പറയണം ഓക്കെ താങ്ക് യൂ